ഞാനിങ്ങനെ എന്നെ പഠിപ്പിക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നിവിടെ ചേച്ചിയുടെ പേര് സോനു എന്നാണ് അപ്പോള് ചേച്ചി ഇങ്ങനെ ക്ലാസ്സിക്കൽ ഡാൻസ് ക്ലാസ്സിക്കൽ ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല വെസ്റ്റേൺ ഡാൻസാണ് ചേച്ചി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ക്ലാസ്സിക്കൽ ഡാൻസ് മോഹിനിയാട്ടം പഠിക്കാൻ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്തതായതുകൊണ്ട് ഞാനിങ്ങു പോരുന്നു സ്വന്തമായിട്ട് ഡാൻസ് കൊറിയോഗ്രാഫിയ്തിട്ടുണ്ട് കാരണം ഇപ്പോള് നമ്മുടെ സ്കൂൾ ആനുവൽ ഡേക്കൊക്കെ വന്നപ്പോള് നമ്മള് നമ്മളെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു അപ്പോള് നമ്മള് തന്നെ പാട്ട് കേട്ട് അതിനനുസരിച്ചുള്ള സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പോള് അതൊക്കെ തീർച്ച നല്ലൊരു എക്സ്പീരിയൻസാണ് കാരണം നമ്മളൊരു ജീവിതത്തില് സ്വന്തമായിട്ട് നമ്മളത്ര വലിയ മികച്ച കലാകാരന്മാരൊന്നുമല്ലല്ലോ അപ്പോള് നമ്മള്ക്ക് നമ്മള് പഠിച്ച പഠിച്ചുവന്ന രീതി പഠിപ്പിച്ച ആൾക്കാര് അവരുടെ കയ്യില്നിന്ന് കടമെടുത്ത കുറേ സ്റ്റെപ്പ് അങ്ങനെ നമ്മള് നമ്മുടേതായ രീതിയിൽ കുറേ ഡാൻസസ് ഡാൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നെ പഠിപ്പിച്ച ചേച്ചിമാരൊക്കെ അവരൊക്കെ നല്ല ഡാൻസ് കളിക്കുന്നവരാണ് അവരുടെയൊക്കെ ശിഷ്യത്വത്തിൽ പഠിക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും നല്ലൊരു കഴിവായിട്ട് ഞാൻ കാണുന്നു ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു സ്വന്തമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുമുണ്ട് പഠിച്ച് സംവിധാനം ചെയ്തിട്ടുമുണ്ട് കളിച്ചിട്ടുമുണ്ട്